സാഹിത്യത്തിലും കവിതയിലും മറ്റ് കലാവിഷ്ക്കാരങ്ങളിലും മലയാള ഭാഷ വളരേ മനോഹരമായിത്തന്നെ ഉപയോഗിക്കപ്പെടുന്നുണ്ട് ലോകപ്രശസ്തമായ പല സാഹിത്യ കൃതികളും മലയാള ഭാഷയിൽ ഉണ്ടായിട്ടില്ലന്നാണ് ഉദാഹരണമായിട്ട് ഇപ്പോൾ സിനിമയെ ഹൈ തീയറ്ററുകളിൽ എത്തിയിരിക്കുന്ന ആടുജീവിതം പോലെയുള്ള കലാവിഷ്ക്കാരങ്ങൾ ആടുജീവിതം തന്നെ മലയാളത്തിലെ ഒരു വളരെ പ്രശസ്തമായൊരു നോവലിനെ അടിസ്ഥാനമാക്കി ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളൊരു സിനിമയാണ് അതുപോലെ അതായത് പഴയകാലം തൊട്ടുതന്നെ മലയാള ഭാഷ വളരെ മനോഹരമായി സാഹിത്യത്തിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഒട്ടനവധി സാഹിത്യ കൃതികൾ രൂപപ്പെട്ട് വന്നിട്ടുണ്ട് കവിതയിലും നാടകങ്ങളിലും എല്ലാം നമ്മുടെ ഭാഷ വളരെ മനോഹരമായിത്തന്നെ കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട്